ഹലോ ബേബി ഹൈപ്പർ മാർക്കറ്റ് അല്ലേ ഇന്നലെ അതുവഴി പോകുമ്പം ഞാൻ അവിടെ കയറിയിരുന്നു എനിക്ക് വീട്ടിലൊരു മര്യാദക്കൊരു മൂർച്ചയില്ലാത്തൊരു നൈഫ് മൂർച്ചയില്ലാത്തൊരു നൈഫായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേങ്കില് അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു നല്ലൊരു നൈഫ് വാങ്ങാമെന്ന് വച്ചിട്ടാണ് ബേബി ഹൈപ്പർ മാർക്കറ്റിൽ കയറിയത് എനിക്ക് അവിടെ കണ്ടപ്പോൾ തന്നെ എൻ്റെ ഒരു നൈഫ് കണ്ടപ്പം തന്നെ അത് ഞാൻ വിചാരിച്ചു നല്ല മൂർച്ചയുള്ളതും നല്ല നല്ലോണം നമുക്ക് പച്ചക്കറികളും നല്ലോണം വൃത്തിക്ക് അരിഞ്ഞെടുക്കാൻ പറ്റുന്ന നൈഫാണെന്ന് വിചാരിച്ചു പക്ഷേ എന്ന് വിചാരിച്ച് ഞാനത് വാങ്ങുകയും ചെയ്തു നല്ല പൈസയും ഉണ്ട് കെട്ടോ ഇരുന്നൂറ് ഇരുന്നൂറ്റി മുപ്പത് രൂപ എങ്ങാനും അന്നാ നൈഫിനായത് അപ്പം അത്രയും പൈസ കൊടുത്ത് വാങ്ങുന്നതല്ലേ നല്ലതായിരിക്കും എന്ന് വിചാരിച്ച് വാങ്ങിയതാണ് വീട്ടിലെത്തി രാത്രി പിന്നെ അച്ഛന് വേണ്ടിയിട്ട് പയറ് അരിയണായിരുന്നു അപ്പം പയറ് അരിയുമ്പം തന്നെ ആ നൈഫിനൊട്ടും തന്നെ മൂർച്ചയില്ല അതുമാത്രല്ല ഒന്നരിയുമ്പം തന്നെ അതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ പൊടിഞ്ഞ് പൊടിഞ്ഞ് പോകുന്ന പോലത്തെ അവസ്ഥ വളരെ മോശമായിട്ടുള്ളത് നൈഫാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ആറ്റ് നോറ്റിട്ട് വാങ്ങിയതാണ് ഒരു നല്ല ഒരു നൈഫ് വാങ്ങാമല്ലൊ എന്ന് വിചാരിച്ചിട്ട് പക്ഷേങ്കില് ഇത് മുറിയുന്ന് തന്നെ ഇല്ല നമുക്കിപ്പം ഒരു പച്ചക്കറി പയറ് പോലും മുറിയുന്നില്ലാന്ന് പറയുമ്പോൾ അതിൻ്റെ സ്ഥിതി എന്താണെന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ ഒന്നും പറയാനില്ല വളരെ മോശമായിട്ടുള്ള ഒരു നൈഫാണ് കിട്ടിയത് കേട്ടോ